ഒരുപാട് അധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൽ ആശുപത്രികളുടെ സേവനം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അതുമാത്രമല്ല അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ആശുപത്രി സന്ദർശിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അത്രയ്ക്കും രോഗം മൂർച്ഛിച്ചാൽ മാത്രമേ ഞാൻ ആശുപത്രി സന്ദർശിക്കാറുള്ളൂ അങ്ങനെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ചേച്ചി ഗർഭിണി ആയിരുന്ന സമയത്ത് നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ചികിത്സ നേടിയിരുന്നത് അപ്പോൾ ചേച്ചിക്ക് പെട്ടെന്ന് വയറുവേദന വന്ന സമയത്താണ് നമ്മൾ ആശുപത്രിയിലേക്ക് പോയത് അപ്പോൾ ആ ഒരു സമയത്ത് ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചേച്ചിക്ക് ചികിത്സ നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ കാഷ്വാലിറ്റി പോയി അത്യാഹിത വിഭാഗത്തിൽ പോയ സമയത്ത് തന്നെ അവിടെയുണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ പറയുകയാണ് നിങ്ങൾ സ്കാനിങ്ങും മറ്റും ഇ സി ജി ഒക്കെ ചെയ്യണമെന്ന് ആ ഒരു സമയത്ത് അവിടെ ആ ഒരു ഗവൺമെന്റ് ആശുപത്രി ഇതിനൊക്കെ ഉണ്ടായി ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല സ്കാനിങ്ങും ഇ സി ജി ഒക്കെ നമ്മൾ പുറത്ത് പോയിട്ട് പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു വീൽ ചെയർ പോലും അല്ലെങ്കിൽ ഒരു ആംബുലൻസ് പോലും ആംബുലൻസിൻ്റെ സേവനം പോലും അവര് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മള് നേരിട്ടത് നേരെ മറിച്ച് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോയ സമയത്ത് ക്യൂ ഒന്നും നിൽക്കേണ്ട ഒര് ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തിക ഭദ്രത നമ്മള് ഉറപ്പു വരുത്തണം ഒരുപാട് പൈസച്ചിലവ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയ സമയത്ത് ഗവൺമെന്റ് ആശുപത്രിയിനെ വച്ച് നോക്കുമ്പോൾ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവുകൾ കൂടുതലാണ് പക്ഷേ അവിടെയുള്ള സേവനങ്ങൾ ഒക്കെ നമ്മൾ തൃപ്തികരമാണ് അതുമാത്രമല്ല ക്യൂ അത്രയധികം നമ്മൾ നിൽക്കേണ്ടി വന്നിട്ടില്ല ഗവൺമെന്റ് ആശുപത്രിയിൽ ആക്കുമ്പം ചികിത്സ ചിലവ് കുറവാണ് പക്ഷേ അതിൻ്റെ സേവനങ്ങൾ ഒരുപാട് വൈകിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചികിത്സ ഒരു ജനങ്ങൾക്കും സാധാരണയുള്ള ഒരു ജനങ്ങൾക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നില്ല അത് എൻ്റെ ഒരു അഭിപ്രായമാണ് തൃപ്തികരം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അതുമാത്രമല്ല ഒട്ടും വൃത്തിയോ ഒന്നും ഇല്ല ഒരു ഗർഭിണിക്ക് വേണ്ട ഒര് അടിസ്ഥാന സൗകര്യങ്ങള് പോലും ആ ഒരു ആശുപത്രി നൽകിയിട്ടില്ല എന്നാണ് സത്യം അതുകൊണ്ടുതന്നെ വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് വളരെയധികം മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്